ഹലോ എഡിറ്റിംഗ് പ്രക്രിയ എന്നുള്ളത് ഞാൻ അധികം ചെയ്യാറില്ല പക്ഷെങ്കിലും ഞാൻ അത് ചെയ്യാറുണ്ട് ഒരിക്കലും ഞാൻ അത് ഒരു ഒഴുക്കിനൊത്ത് എഴുതാറുക അല്ല ചെയ്യാറുള്ളത് അത് ഞാൻ വളരെ താല്പര്യത്തോട് കൂടെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടാണ് ഞാൻ എഡിറ്റിങ്ങ് റിവിഷനുകൾ ചെയ്യാറുള്ളത് ഇതിനായി എനിക്ക് ഒരു പ്രത്യേക പ്രക്രിയ തന്നെ ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി ഞാൻ ഒരു എഴുത്തുകാരി ആയതിനാൽ തന്നെ ഞാൻ എഴുതുന്നു അത് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അവൾ അത് എഡിറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എഡിറ്റിങ്ങിന് റിവിഷനുകൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ എൻ്റെ രീതി പറഞ്ഞു നിങ്ങളുടെ രീതിയോ പ്രത്യേക പ്രക്രിയ എനിക്ക് അതിനുണ്ട് ഒരിക്കലും നമ്മൾ ഒരു ഒഴക്കിനത്തൊ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്തു വിട്ടാൽ ഒരിക്കലും അത് എന്താണ് പറയുക അത്രത്തോളം പെർഫെക്റ്റ ആകത്തില്ല നമ്മൾ അത് താല്പര്യത്തോട് കൂടിയും ഇഷ്ടപ്പെട്ടുകൊണ്ടും നമ്മുടേതായ കഴിവുകൾ കാണിച്ചുകൊണ്ടും എഡിറ്റ് ചെയ്യണം എന്നാലേ അതിന് അതിൻറ്റേതായ ഭംഗി കിട്ടുകയുള്ളു ഒരു കഥകൾ അല്ലെങ്കിൽ ഒരു എഴുത്തുകൾ എഴുതുമ്പോൾ അതിൽ വരുന്ന തെറ്റുകൾ അത് എഡിറ്റ് ചെയ്തു ശരിയാക്കുന്നു അതിന് നല്ല നല്ല നിറങ്ങൾ കൊടുക്കുന്നു നല്ല നല്ല ചിത്രങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം വളരെ മനോഹരമായാണ് എഡിറ്റ് ചെയ്യുന്നത് ഒരു കഥയാകുമ്പോൾ ആ കഥ വായിക്കുന്ന ആൾക്ക് നല്ലപോലെ ചിത്രമായി ഓടണമെങ്കിൽ നമ്മൾ അതിനെ അതേ രീതിയിൽ സവിശേഷിച്ചു വർണ്ണിക്കേണ്ടതുണ്ട് ഒരു കഥയിൽ ഞാൻ ചിത്രം എഡിറ്റ് ചെയ്തു റെഡിയാക്കുന്നു ശേഷം തെറ്റുപറ്റിയ അക്ഷരങ്ങളെ തിരുത്തി എഡിറ്റ് ചെയ്യുന്നു പല പല നല്ല നല്ല കാണുവൻ അഴകുള്ള നിറങ്ങളെ വർണ്ണിച്ചു കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നു ഓരോരുത്തർക്കും അവരുടേതായ എഡിറ്റിംഗ്ങ് പ്രക്രിയകൾ ഉണ്ടാകും എൻ്റെ പ്രത്യേക പ്രക്രിയ ഒന്നുണ്ട് ഒന്നുണ്ടെന്ന് പറയുന്നതാണ് ശരി എനിക്ക് പ്രത്യേകമായി ഞാൻ എഡിറ്റ് ചെയ്യാൻ ഒരു ആപ്പ് യൂസ് ചെയ്യാറുണ്ട് ആ ആപ്പിൽ ഒരു പൈസ അഥവാ നമ്മൾ ഒരു തുക കൊടുത്തുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക പക്ഷെ വളരെ മനോഹരമായി നമ്മൾക്കത് എഡിറ്റ് ചെയ്യാൻ കഴിയും അത് കാണുന്ന ആൾക്ക് തന്നെ ആ ഇതൊന്ന് വായിച്ചാൽ കൊള്ളാം ഇതൊന്ന് നോക്കിയാൽ കൊള്ളാം എന്നുള്ള ആ ഒരു ആഗ്രഹം തോന്നണം അത് തോന്നണം അത് തോന്നുവാനാണ് വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റിംഗ പലർക്കും പല പല രീതിയിലായിരിക്കും താൽപര്യം എൻ്റെ താല്പര്യം നിറങ്ങളിലാണ് നല്ല നല്ല നിറങ്ങൾ കൊടുക്കാനും നല്ല നല്ല ചിത്രങ്ങൾ കൊടുക്കാനുമാണ് എനിക്ക് താൽപര്യം വേറെ താല്പര്യമുള്ളവർ വേറെയുമുണ്ട് പക്ഷെ എൻ്റെ താല്പര്യം ഇതാണ് ഒരു എഡിറ്റിങ്ങിലൂടെ നമ്മൾക്ക് ഒരു വളരെ മനോഹരമായ ഒരു കഥയെ തന്നെ കൊടുക്കുവാൻ കഴിയും നിങ്ങളും എഴുതുക നിങ്ങളും എഡിറ്റ് ചെയ്യുക അതിൻ്റെ ഒരു അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ആ ഒരു സന്തോഷം അത് തന്നെയാണ് വേറെ നമ്മൾ എഡിറ്റ് ചെയ്തത് വായിച്ചു കഴിയുമ്പോൾ അവർ നമുക്ക് തരുന്ന റിപ്ലൈകൾ നമ്മുടെ കഥയെപ്പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ വളരെ നല്ലതായിരിക്കും വളരെ ഭംഗിയും താങ്ക് യു